ഞങ്ങളുടെ ഈ പ്രദേശത്ത് മതപരമായിട്ടാണ് പെരുനാളുകളും ഉല്സവങ്ങളും ഒക്കെ വരുന്നതിനോടനുബന്ധിച്ച് ധാരാളം ചെറുകിട കച്ചവടങ്ങളൊക്കെ എത്തിച്ചേരാറുണ്ട് അത് വിശ്വാസപരമായ സാധനങ്ങളും അതുപോലെത്തന്നെ ചെറുകിട കുടില്വ്യവസായങ്ങള് പോലെയുള്ള മേഖലകളിൽനിന്നുള്ള സാധനങ്ങള് ഉത്പാദിപ്പിച്ച് അവർ ചെറിയ സ്റ്റാളുകള് ഒക്കെ ഇട്ട് അവിടെ കച്ചവടം നടത്തുന്നു ഉപജീവനം എന്ന നിലയിലും അതോടൊപ്പം തന്നെ അത് മതപരമായ ആവശ്യങ്ങള്ക്ക് ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ഭക്തവസ്തുക്കൾ അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ചെറിയ ചെറിയ അച്ചാറ് പോലെയുള്ള ചെറിയ കുടില് വ്യവസായങ്ങളില് നിന്നുള്ള കുടുംബ യൂണിറ്റുകളില് നിന്നൊക്കെ ഉണ്ടാക്കി കൊണ്ട് വരുന്ന ഭക്ഷണ വസ്തുക്കൾ ചെറിയ വറ സാധനങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ചെറിയ കച്ചവടങ്ങളായിട്ട് ഈ ഉത്സവത്തോടും മത പെരുനാളിനോടൊക്കെ അനുബന്ധിച്ച് കടകളൊക്കെയായിട്ട് ഇവിടെ എത്തിച്ചേരാറുണ്ട് അതോടൊപ്പം തന്നെ ഉത്സവത്തോടൊക്കെ അനുബന്ധിച്ച് നമ്മുടെ ഇങ്ങനെ പൊങ്കാലയോ അങ്ങനെയൊക്കെയുള്ള അതൊക്കെ വരുമ്പം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളും ഒക്കെ ക്രമീകരിക്കപ്പെടുന്നുണ്ട് ഈ അമ്പലത്തിന് ഇവിടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലേക്ക് ആവശ്യമായിട്ട് പൂവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് കളക്റ്റ് ചെയ്യുകയും അത് ഇവിടെ കൊണ്ട് വന്നു വില്ക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ക്ഷേത്രങ്ങളിലേക്ക് ആവശ്യമുള്ള പൂമാലകള് ഒക്കെ കെട്ടിക്കൊണ്ടു വരുന്നത് അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ഓരോ കാര്യങ്ങള്ക്ക് വേണ്ടി ഉപയോഗിക്കാന് പറ്റുന്നതാണ് നമ്മുടെ പ്രദേശത്തെ ചെറുകിടമായിട്ടുള്ള ഈ വ്യവസായങ്ങള് ഒക്കെ വളരെയധികം ഹെല്പ്ഫുള് ആണ് ആള്ക്കാര്ക്ക്